ഇൻ ഇന്ത്യയിലെ ഗതാഗത സംവിധാനത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് ഞാൻ പറയും ഗതാഗതം ഒത്തിരി മെച്ചപ്പെടാനുണ്ടെന്ന് കാരണം ഇപ്പം നമ്മൾ രാവിലെ സ്കൂളിലേക്കും കോളേജിലേക്കും പോവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ റോഡ് നിറയെ നിറയെ എപ്പോഴും തിരക്കാണ് വണ്ടികൾക്ക് പോവാനുള്ള സ്ഥലവില്ല പോവുന്ന വണ്ടികളാണെങ്കിൽ തമ്മിലങ്ങോട്ടുവിങ്ങോട്ടും ഇടിക്കുകയും രാവിലെ അതിന്റെ കലഹോം കാര്യങ്ങളുവൊക്കെയായിട്ട് ഒൻപതുമണിക്കെത്താനുള്ളവർഒൻപത് അര ആയാലും ഓഫീസുകളിലും സ്കൂള്കളിലും എത്താത്ത അവസ്ഥയാണ് രാവിലെ എഴുന്നേൽക്കുമ്പത്തന്നെ വണ്ടികളുടെ സൗണ്ടും ബഹളവും കേട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എഴുന്നേൽക്കുന്നത് അറ്റ്ലീസ്റ്റ് സിറ്റീൽ ജനിച്ചു വളർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നും കേൾക്കുന്ന സൗണ്ടെന്ന് പറയുന്നത് കാറിന്റെ ഹോണടിയും അല്ലെങ്കിൽ നാട്ടുകാർ തമ്മിലുള്ള ബഹളവുമാണ് ഇപ്പോൾ റോഡുകളുടെ കാര്യം തന്നെ ഗതാഗതത്തിൽ ഏറ്റോം അത്യാവശ്യമായ ഘടകം എന്ന് പറയുന്നത് വൃത്തിയുള്ള റോഡാണല്ലൊ അങ്ങനൊരു റോഡ് കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് നല്ലൊരു റോഡെന്ന് പറയാൻ നാഷണൽ ഹൈ വെ അല്ലാതെ വേറെ റോഡുകളൊന്നുവില്ല നാഷണൽ ഹൈ വേല് തന്നെ അവിടെയിവിടെയൊക്കെ കുഴികളും കാര്യങ്ങളുവൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ആക്സിഡൻറ്റ്സ്സ് നടക്കുന്നുമുണ്ട് ഇപ്പം റൂറൽ ഏര്യ എടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശം എടുത്തുകഴിഞ്ഞാൽ അവിടെ തിരക്ക് കുറവാണെങ്കിലും ഉള്ള വണ്ടികളെന്ന് പറയുന്നത് റാഷ് ഡ്രൈവിങ്ങാണ് ഭയങ്കര വേഗത കൂടീട്ട് വണ്ടി ഓടിക്കുന്നു അതുകാരണം തന്നെ വണ്ടികളുടെ ആക്സിഡൻറ്റ് കേസസ് അവിടെയും കൂടുതൽ തന്നെയാണ് സ്കൂളിൽ പൂവാനായിട്ട് കുട്ടികളിറങ്ങുമ്പോഴത്തേനും ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ മദ്ധ്യവയസുള്ള ആൾക്കാർ വണ്ടി ഓടിക്കുമ്പോഴത്തേനും അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടീട്ട് ഗതാഗത നിയമം പാലിക്കുന്ന ആൾക്കാരൊ അല്ലെങ്കിൽ റോഡ്കൾ വൃത്തിയാക്കുന്ന ആൾക്കാരൊ ഒന്നും ഇല്ലതാനും സിഗ്നലും സീബ്രാ ലൈൻസും എല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എത്ര പേരാണ് അതൊക്കെ പാലിക്കുന്നതെന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യവാണ് അതുപോലെ ഞാനൊരു കോളേജ് പോയിവരുന്ന വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ഞാൻ കാണുന്നതാണ് രാവിലെ എന്തുമാത്രം ആൾക്കാരാണങ്ങോട്ടും ഇങ്ങോട്ടുവൊക്കെ റോഡിലൂടെ പോവുന്നതെന്നും എത്രത്തോളം പ്രശ്നങ്ങളാണ് റോഡിൽ ഗതാഗത നിയന്ത്രണം നേരെയായി നടക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്നതെന്നും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാനിപ്പം പറയുന്നത് തിരുവനന്തപുരത്തെ മാത്രം കാര്യവാണ് അങ്ങനെ കേരളത്തിലെ പതിനാല് ജില്ലയും പിന്നെ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളെടുത്താലും അവിടെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ തന്നെയാണ് ഉള്ളത് അപ്പം ഗതാഗതം ഒരുപാട് മാറാനുണ്ട് ഇന്ത്യ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പം ആദ്യം അവിടെ പ്രാഥമികം പ്രാഥമികമായി കിട്ടുന്ന കാര്യങ്ങളിൽ വേണം മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് അതിൽ ഒരു മെയ്നായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഗതാഗതം എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ഒരു ഭാഗമാണ് ഗതാഗതം